ഇപ്പോൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണംന്ന് പറഞ്ഞാൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇപ്പോൾ ഇരുന്നു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പറയും വ്യമാ വ്യായാമം വ്യായാമം ചെയ്യണം അപ്പം വ്യായാമത്തിലൂടെ ഒരാൾക്ക് ആരോഗ്യം നിലനിർത്താൻ വളരെ ഇംപോർട്ടൻഡ് ആയിട്ടുള്ള കാര്യം വ്യായാമം ചെയ്യുക എന്നതാണ് അപ്പോൾ ഒരു വ്യായാമത്തിലൂടെ അയാളുടെ മസിൽസ് എല്ലാം ആക്ടിവേറ്റ് ആവുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അയാളുടെ ഹൃദയം കൂടുതൽ പമ്പ് ആകും അപ്പോൾ കൂടുതൽ ഹൃദയത്തിന് കൂടുതൽ ബലം ലഭിക്കുകയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അയാളുടെ അയാളുടെ ബോഡി ഫുൾ പവർഫുൾ ആവുകാണ് അന്നേരം ഇപ്പോൾ ഒരാൾ ചുമ്മാ അനങ്ങാതെ ഇപ്പം ഒരാളിരിക്കുകയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും അയാളുടെ അയാളുടെ ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും അയാൾ ഇരുന്ന് ജോലി ചെയ്യുന്ന അപ്പം അയാൾ വ്യായാമം ഒന്നും ചെയ്യത്തില്ല അയാൾ രാവിലെ എഴുന്നേൽക്കുന്നു ഓഫീസിൽ പോകുന്നു ഇരുന്നു വർക്ക് ചെയ്യുന്നു പിന്നെ അയാൾ വർക്ക് പിന്നെ അയാൾ ഒന്നും ചെയ്യുന്നില്ല അന്നേരത്തിന് അയാൾ അയാളുടെ ബോഡി ബോഡി ഫുൾ ഡൗൺ ആവുകയാണ് അപ്പോൾ ബോഡി ഫുൾ ബോഡി ഫുൾ ഡൗൺ ആവുക ആവുന്നത് കൊണ്ട് തന്നെ അയാളുടെ ബോഡി അതിനനുസരിച്ച് ഉള്ള അയാളുടെ ലൈഫ് കുറയും അപ്പോൾ അയാളുടെ അയാൾക്കിപ്പം എന്നാ ഡയബറ്റീസ് ഉണ്ടായിരിക്കും ഷുഗർ ഉണ്ടായിരിക്കും പിന്നെ അങ്ങനെ ബോൺസിനൊക്കെ ബലം കുറയും പിന്നെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറയും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കുറയും അങ്ങനെ വ്യായാമം ചെയ്യുന്നത് കൊണ്ടും ചെയ്യാത്തത് കൊണ്ടും തന്നെയാണ് അയാളുടെ ബോഡി ഫുള്ള് ഡെഡ് ആവുകയാണ് അപ്പം പതിയെ പതിയെ അയാളുടെ ലൈഫ് അയാളുടെ ലിവിങ് ലൈഫ് കുറഞ്ഞു കുറഞ്ഞു വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം അത് വ്യായാമം മാത്രം അയാൾ വെള്ളം ശരിക്കും കുടിക്കണം വെള്ളം നന്നായി കുടിക്കുന്നതിലൂടെ ബ്ലഡ് ഫുള്ള് റിക്കവർ ആവും ബ്ലഡ് ഫുള്ള് പ്യൂരിറ്റി ആവുകയും ഈ കിഡ്നിക്ക് നല്ലതാണ് അപ്പോൾ ഒരാളുടെ കിഡ്നി എന്ന് പറയുന്നത് വെള്ളം ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നതും വെള്ളത്തിൻ്റെ ഉപയോഗം വരുന്നതും കിഡ്നിക്കാ അപ്പോൾ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ കിഡ്നിക്ക് അസുഖം വരില്ല കിഡ്നിക്ക് അസുഖം വന്നാൽ എന്താ ചെയ്യാ നമ്മുടെ പാതി ലൈഫ് നമ്മുടെ അവിടെ തീരുകയാണ് അപ്പോൾ കിഡ്നി ഇല്ലാണ്ട് കൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ശരിക്കുമുള്ള ഒരു ഒരു ഒരാൾക്ക് ചെയ്യാവുന്നതിൻ്റെ പകുതിയുടെ പകുതി ജോലിയെ കിഡ്നി കമ്പ്ലൈന്റ് ആയിട്ടുള്ള കിഡ്നിക്ക് വയ്യാത്ത ഒരാൾ അപ്പോൾ അയാൾക്ക് അത്രയുമേ ചെയ്യാൻ പറ്റത്തൊള്ളൂ അപ്പോൾ അയാൾ അത്രോം അയാളുടെ ലൈഫ് അത്രയും കുറയുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് പിന്നെ അത് പാടായിരിക്കും അപ്പം ഒരാൾ ചെയ്യുന്നതിലൂടെ അപ്പം അയാൾ വെള്ളം കുടിക്കുകയും ചെയ്യും വെള്ളം കുടിക്കേം വേണം വ്യായാമം ചെയ്യുകയും വേണം പിന്നെ നല്ല വായു രാവിലെ തന്നെ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെറിയൊരു യോഗ ഒന്ന് ചെറുതായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാളുടെ ലങ്സിനും നല്ലതാണ് ഹൃദയത്തിൻ്റെ കാര്യങ്ങൾക്കും നല്ലതാണ് അപ്പം ഒരു ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് ഈ വ്യായാമം വെള്ളം കുടിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിലൂടെ ഒരാളുടെ ലൈഫ് കൂടുകയാണ് അപ്പോൾ അയാളുടെ ആരോഗ്യം കൂടുതൽ നിലനിർത്താൻ പറ്റും ഇപ്പം ഇപ്പം പുതുതലമുറയിൽ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ ഒരു ഒരു ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ ആൾക്കാർ ആളുകൾ മരിച്ചുപോയ്ക്കൊണ്ടിരിക്കുന്നു കാരണം എല്ലാവരും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വ്യായാമം ഒന്നുമില്ല ഇരിക്കുന്നു ജോലി ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഇപ്പം പണ്ടത്തെ ആൾക്കാരെന്നു പറഞ്ഞാൽ അവർ ബോഡി ഫുള്ള് ആക്ടീവ് ആവുകയാണ് അവരുടെ ഓരോ മസിൽസ് ആക്ടീവായി അവർ ഫുള്ള് കെളയ്ക്കുന്നോ ഓരോ വെയിറ്റുകൾ എടുക്കുന്നു അപ്പോ അവരുടെ ബോഡി ഫുൾ ആക്ടീവ് ആവുവാ അപ്പോ അവർക്ക് അതിൻ്റെതായ ബെനഫിറ്റ്സ് ഉണ്ട് അപ്പം അവർ എല്ലാവരും അവരുടെ മസിൽസ് ഒക്കെ പവർഫുൾ ആണ് അപ്പോൾ അവരുടെ ഒരു നോർമൽ ഇപ്പോൾ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഇപ്പോൾ ഈ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളെക്കാട്ടിലും ഇരട്ടിടെ ഇരട്ടി പവർഫുൾ ആണ് ആ വ്യക്തിന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഓരോ വ്യത്യാസങ്ങളുണ്ട് അപ്പം അത് അതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം വ്യായാമം വെള്ളം കുടിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫ് നിലനിർത്താൻ നമുക്ക് സാധിക്കും